ഞങ്ങളുടെ പ്രദേശത്ത് തിയേറ്ററുകള് വളരെ കുറവാണ് ഞങ്ങളുടെ അടുത്ത പ്രദേശങ്ങളായ തൊടുപുഴ കട്ടപ്പന അടിമാലി എന്നീ സ്ഥലങ്ങളിലാണ് ഞങ്ങള് സിനിമക്ക് വേണ്ടി സിനിമ കാണാന് വേണ്ടി പോകുന്നത് അവിടെയാണ് ഞങ്ങൾക്ക് തിയേറ്ററുകള് ലഭ്യമായിട്ടുള്ളത് അതിനാല് തന്നെ ഏകദേശം ഒരു മണിക്കൂര് അല്ലേൽ രണ്ടു മണിക്കൂറടുത്ത് ഞങ്ങള് യാത്ര ചെയ്യണം ഒരു സിനിമ കാണണമെങ്കില് അതുകൊണ്ടുതന്നെ നേരത്തേ ഇറങ്ങണം അതുകൊണ്ടുതന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് പോയിരുന്നു സിനിമ കാണാന് സാധിക്കത്തില്ല ചിലപ്പം ട്രാഫിക്കുകള് മൂലം ഞങ്ങൾക്ക് സിനിമകള് കറക്റ്റായിട്ട് സിനിമകള് ആരംഭിക്കുന്നത് ഒക്കെ ആരംഭ ഭാഗമൊക്കെ പലപ്പളും മിസ് ആകാറുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളുടെ നാട്ടില് ഒരു തിയേറ്റര് വരണമെന്ന് ഞങ്ങള് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള തിയേറ്ററുകളാണ് ഞാന് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ടോള് ബി അറ്റ് സൗണ്ട്സ് വരുന്ന സെവന് പോയിന്റ് വണ് സൗണ്ട്സ് വരുന്ന തിയേറ്ററുകളാണ് ഞാന് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതുപോലെതന്നെ ഫോര് കെ റെസലൂഷന് സ്ക്രീനുകളുള്ള തിയേറ്ററുകളിലാണ് ഞാന് കൂടുതലും സിനിമ കാണാന് പോവാറ് അതുകൊണ്ടുതന്നെ വളരെ ഇമേജ് ക്വാളിറ്റി വളരെ ദൃശ്യ ഭംഗി നമുക്ക് കാണാന് സാധിക്കും വളരെയധികം മികച്ച ദൃശ്യം ഭംഗിയില് നമുക്ക് സിനിമ കാണാന് സാധിക്കും വളരെയധികം നല്ല സൗണ്ട്സ് സിസ്റ്റം നമുക്ക് തരുന്ന തിയേറ്ററുകൾള് നമ്മള് ചെല്ലുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാ സിനിമയിലേക്ക് ആഴ്ന്നിറങ്ങി ഇരുന്ന് കാണാന് സാധിക്കും അല്ലെങ്കിൽ ഇപ്പം പ ഭയങ്കര പതർച്ചയും സൗണ്ടിനൊരു ക്വാളിറ്റിയില്ലാത്ത രീതിയില് നമ്മള് സിനിമ കണ്ട് ഇറങ്ങി വരണ്ടി വരും